അ പറഞ്ഞോളു

അ അതെ പറഞ്ഞോളൂ കുറയുന്നേയില്ലാ ഇതിന് മുൻപ് എവിടേലും കാണിച്ചിരുന്നോ മാറുന്നില്ലല്ലെ ഓക്കെ ഓക്കെ അപ്പോൾ മരുന്ന് എന്തെങ്കിലും ഒക്കെ കഴിക്കുന്നുണ്ടൊ ഇപ്പഴും

ഓക്കെ അപ്പോൾ മാഡം നാളെ ഫ്രീ ആയിരിക്കുമോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക് ഒന്ന് ബുക്ക് ചെയ്യുക ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോകാം മാനന്തവാടിയാണ് കറക്റ്റ് മാഡം മാനന്തവാടി ഉള്ളതാണോ ഓക്കെ അപ്പോൾ നാളെ ഒന്ന് എത്താവോ ടൈം ഇപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യണം അപ്പോൾ അതിനനുസരിച്ചെ ചെയ്യാൻ പറ്റുള്ളൂ മാഡത്തിന് അപ്പോൾ മാഡത്തിന് എപ്പോഴത്തേക്ക് എത്താൻ പറ്റുക അറിയുവാണേൽ നമുക്ക് ആ ടൈമിലേക്ക് ബുക്ക് ചെയ്യാം കിട്ടിയാ മതിയല്ലേ അങ്ങനെ ആണേൽ നമുക്ക് ഒരു പത്തര ആവുമ്പഴേക്കും ബുക്ക് ചെയ്യാം മാഡത്തിൻ്റെ പേര് അർച്ചനാന്നല്ലേ പറഞ്ഞ് ഓക്കെ എത്ര വയസ്സ് എത്രെയാ മുപ്പത്തി മൂന്ന് ഓക്കെ മാഡം അപ്പോൾ നാളെ എത്തിയാ മതി ബാക്കി ഞാൻ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓക്കെ എന്നാ മാഡം ശരി